എനിക്ക് ഫോട്ടോഗ്രാഫീനെപ്പറ്റി അങ്ങനെ വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും കുറേ പേരിങ്ങനെ എടുക്കുന്നതും കുറേ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറേ നല്ല ഫോട്ടോസ് ഒക്കെ കാണാം അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ എടുത്തത് ഏത് ആങ്കിളാ ഏത് ഇതിലെന്താ യൂസ് ചെയ്യുന്നത് ഏത് ഇതാ ഏത് ടൈപ്പ് എഡിറ്റിങ്ങ് ആപ്ലിക്കേഷനാ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് ചോദിച്ച് ഇപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചാണല്ലോ പഠിക്കാറുള്ളത് അതുപോലെത്തന്നെ കൂട്ടുകാരെടുക്കുന്ന ഫോട്ടോ ഫോട്ടോസ് ഉണ്ട് അപ്പം അവരെടുക്കുന്ന ആങ്കിൾസ് അവരെടുക്കുന്ന ഫിൽറ്റേഴ്സ് അവരുടെ ഫോട്ടോഗ്രാഫി സ്കില്ല് അതെല്ലാം കണ്ട് പിടിച്ച് നമ്മൾ വാച്ച് ചെയ്യും ഇപ്പം കോളേജിലും ഓരോരോ പരിപാടിക്ക് ഓരോരോ ആൾക്കാർ കാണുമല്ലോ ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫി സ്കില്ല് കണ്ട് കല്യാണപരിപാടിക്കും ഇപ്പം അവർ ചെയ്യുന്നതെങ്ങനെയാണ് അവരുടെ ആക്ഷൻ ഉം അവർ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാരെ അസ്യുമ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഫിൽട്ടറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പം നമ്മൾ അത് വാച്ച് ചെയ്ത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഒരു സാധനം കേട്ട് പഠിക്കുന്നതിനെക്കാളും നല്ലത് കണ്ട് പഠിക്കണം എന്നാണല്ലോ കേട്ടിട്ടുള്ളത് അപ്പം അതേപടി ഈ ഫോട്ടോഗ്രാഫീ എന്ന് പറയുന്നത് പഠിച്ചെടുക്കാണെക്കാലും ഭേദം ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് പഠിച്ചു അവരുടെ കൂടെ അവരോരോ സംശയം അവരുടെ അടുത്ത് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ മെച്ചം അപ്പം ഞാനിങ്ങനെ കൂട്ടുകാരെടുക്കുന്ന ആങ്കിൾസ് അതുപോലെത്തന്നെ എനിക്ക് നല്ലൊരു ഫോണുണ്ട് അപ്പം അവന്മാരോട് ചോദിക്കും എടാ എങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ നല്ല ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യണം ഏത് ഫിൽട്ടർ ഇടണം ഏത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം അവന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് അതേ സാധനം നമ്മുടെ ഫോണിൽ ചെയ്യാൻ നോക്കും അതുപോലെത്തന്നെ ഈ ഫോട്ടോഗ്രഫീ എന്ന് പറയുമ്പത്തേക്ക് ഒരു സ്വന്തായിട്ട് ഒരു ക്യാമറ വേണം അല്ല സ്വന്തായിട്ട് ക്യാമറ വേണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അത് വേണ്ട ഒരു ഫോണ് ഏതേലും നല്ല ഫോണുണ്ടെങ്കിൽ നമുക്ക് ആ ഫോണുപയോഗിച്ച് നല്ലൊരു ഫോഗ്രാഫി സ്കില്ല് നമുക്ക് കണ്ട് പിടിത്തം കണ്ട് പഠിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും ഇത് മെച്ചം അപ്പം നമ്മുടെ സ്വന്തമായി ഫോണിൽ വ്യത്യസ്തമായുള്ള പിന്നെ പ്രകൃതിയുടെ ഫോട്ടോസും അതായത് നമ്മുടെ ഫോട്ടോസ് വേറെ എവിടുന്ന് നമുക്കിങ്ങനെ ഒരു സീനറി നമുക്ക് മനസ്സിൽ സീനറി വേണം അതാണൊരു ഫോട്ടോഗ്രാഫറ്ടെ മെയിൻ സ്കില്ല് ഇപ്പം ഈ സീനറി വെച്ച് നമ്മൾ എങ്ങനെ അവിടെ നമ്മളൊരാളെ പ്ലേസ് ചെയ്യുന്നു അപ്പം അതിനനുസരിച്ച് നമ്മൾ കിട്ടുന്ന ഫോട്ടോയ്ക്ക് കുറച്ചുംകൂടി പെർഫെക്റ്റ് ഉണ്ടാകും അപ്പം ഈ പ്രത്യേകിച്ച് സ്കിൽസ് സ്കിൽസിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല അതായത് നമുക്ക് ഒരാശയം ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഫോണിൽ പകർത്തിയെടുക്കുന്നു അതിലാണ് ഒരു ഫോട്ടോഗ്രാഫറ്ടെ സ്കില്ല് എന്ന് പറയുന്നത് നമ്മുടെ ആശയം പരിപൂർണ്ണമായി ആ നമ്മൾ എടുക്കുന്ന ആ വ്യക്തി ലയിച്ച് ചേർന്ന് അവരോട് കൂടിച്ചേർന്ന് നിന്ന് അവരുടെ ഏറ്റവും മനോഹരമായി നമുക്ക് എടുക്കാനുള്ള അവസരം ഉപയോഗിക്കുന്നു അത് പോലെ ഏറ്റവും നല്ല ഫോഗ്രാഫീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രകൃതിയുടെ ഫോട്ടോ എടുക്കലാണ് അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പോലെ നമുക്ക് കിട്ടും ഏറ്റവും നമുക്കിങ്ങനെ സീനറി മനസ്സിൽ കണ്ടാൽ അപ്പളേ നമ്മൾ ഓട്ടോ വിഷ്വല് വിഷ്വലൈസ് ചെയ്യുക അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉചിതമാണ് അതുപോലെത്തന്നെ എന്തുവാ എൻ്റെ പ്രേരണ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണെൻ്റെ കസിൻ ചേട്ടൻ പുള്ളി എന്ന് പറയുമ്പോഴ്ത്തേക്കും ഒരു പ്രഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് വെഡിങ്ങ് എല്ലാം എല്ലാംതന്നെ പുള്ളി നല്ല കിടിലനായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ക്യാപ്ച്ചറ് ചെയ്യും അതുകൊണ്ടുതന്നെയാണ് എനിക്കീ പുള്ളിയോട് പുള്ളിയാണെൻ്റെയൊരു പിന്നെ മോഡലിങ്ങ് ഒരു പ്രേരണ അതൊക്ക പറയുന്നത് പുള്ളി നല്ല സെറ്റപ്പ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് ഒരാളൊരു വ്യക്തിനെ തന്നെ കിടിലനായിട്ട് പോസ് ഒക്കെ ചെയ്ത് അല്ലെ കിടിലൻ നല്ലത് പോലെ തന്നെ ആ വ്യക്തി അവർ നമുക്ക് തരുന്ന ആ ആ സ്നേഹത്തിനോളം ആ പണത്തിൻ്റെ പണം പണമായിരിക്കുമല്ലോ മെയിനായിട്ടൊരു ഫോട്ടോഗ്രാഫർ അത് പ്രൊഫഷണൽ ഫോട്ടോ ചെയ്യുന്ന കേസ് അപ്പം ആ പണത്തിനോട് നല്ല രീതിയിലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ് പുള്ളിയാഗ്രഹിക്കുന്നത് പുള്ളീടെ സ്കിൽസ് പുള്ളിയുടെ ഐഡിയോളജി പുള്ളി നല്ലൊരു പുള്ളിയൊരു പ്രത്യേക രീതിയിലാണ് ഫ്രെയിംസ് സെറ്റ് ചെയ്ത് എല്ലാം തന്നെ ചെയ്യുന്നത് അത് കൊണ്ട് പുള്ളിയാണെനിക്ക് കൂടുതൽ പ്രേരണ പുള്ളിയുടെ ഓരോ പോസ് പറഞ്ഞ് കൊടുക്കുന്ന രീതി ആൾക്കാരെ കൈകാര്യം ചെയ്ത രീതി ഏറ്റവും കൂടുതൽ മല്ല് പിടിച്ചൊരു പണി ഫോട്ടോഗ്രാഫി തന്നെയായിരിക്കും പക്ഷെ എളുപ്പമാണെന്ന് എല്ലാവരും പറയും പക്ഷെ അത് ചെയ്ത് കൊടുക്കുന്ന അത് അത് അതിൻ്റെ പെർഫക്റ്റിൽ വരുമ്പളാണ് ഒരു ഫോട്ടോഗ്രാഫർടെ സ്വന്തമായിട്ട് ഒരു ആത്മസംതൃപ്തി വരുന്നത് അതുകൊണ്ട് ഫോട്ടോഗ്രാഫീസ് ഈസ് പിന്നെ ഒരു സെറ്റപ്പ് ആണ് അതുകൊണ്ട് ഫോട്ടോഗ്രാഫി വച്ച് എനിക്കെൻ്റെ ചേട്ടനെ തന്നെയാണ് പ്രേരണ